ഇപ്പോൾ കൂടുതൽ ആൾക്കാരും എന്താ പറയുക മൃഗങ്ങളെ ഒക്കെ പരിപാലിക്കുന്നത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ ബിസിനസ് രീതിയില് കൊണ്ട് നടക്കുന്നവരുണ്ട് പിന്നെ എന്താ പറയുക സ്നേഹത്തിൻ്റെ പുറത്തും മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട് ഇപ്പോൾ ബിസിനസ് ആയിട്ട് ഇപ്പോൾ പറയാണെങ്കി കുറെ ആൾക്കാര് ഇപ്പോൾ പശുവിനെ വളർത്തുന്നതോക്കേന്ന് പറയും പശു ആട് കോഴി അങ്ങനെയുള്ളതിനെയൊക്കെ വളർത്തുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാര് ഇപ്പോൾ കോഴിനെയൊക്കെ ആണെങ്കിൽ മുട്ട ഇറച്ചി അങ്ങനെയുള്ള യൂസുകൾക്കാണ് പശുവിനെ കൂടുതലായിട്ടും പാല് പിന്നെ അതിനുശേഷം വരുന്നത് എന്താന്നു വെച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഇതിനെ വളത്തിന് വേണ്ടി ചാണകം അങ്ങനെയുള്ള ഇതിനൊക്കെ യൂസ് ചെയ്യും പിന്നെ അതു കഴിഞ്ഞ് പശുവിനെയും എന്താ പറയുക കഷാപ്പിനായിട്ട് കൊടുക്കുന്നവരുണ്ട് ഇറച്ചിക്ക് വേണ്ടി വിൽക്കുന്നവര് അങ്ങനെ ഒരുപാട് രീതിയിലാണ് ഇപ്പോൾ മൃഗങ്ങളെ കൊണ്ട് നടക്കുന്നത് അപ്പോൾ എന്താ പറയുക തുടക്കം തൊട്ട് ഇപ്പോൾ പശു എന്ത് മൃഗങ്ങളെയിലും വളർത്തുമ്പോൾ നല്ല രീതിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു തന്നെയാണ് വളർത്തുക അത് കഴിയുമ്പഴാണ് മെല്ലെ മെല്ലെ അതിനെ പരമാവധി എന്താ പറയുക മുതലെടുക്കുകയാണ് കാരണം എന്താ പറയുക അതിൻ്റെ പശുവിൻ്റെ പാല് മുതല് ചാണകം വരെ എന്താ പറയുക വേസ്റ്റ് വരെ യൂസ് ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും അപ്പോൾ പശുവിനെ ഒക്കെ വളർത്തുന്നതിലൂടെ കൂടുതലായിട്ടും എല്ലാവരും ഉദ്ദേശിക്കുന്ന പണം തന്നെയാണ് എന്താന്ന് വെച്ചാൽ കാശിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും മൃഗങ്ങളെ ഇപ്പോ എന്തിനായാലും കാശിനു വേണ്ടി വളർത്തുന്നവരാണ് കൂടുതലായിട്ടും കണ്ടു വരുന്നത് കാരണം ബിസിനസ് രീതിയിലാണ് എല്ലാത്തിനെയും ഇപ്പോൾ ആൾക്കാര് വളർത്തുന്നത് പിന്നെ സ്നേഹത്തിൻ്റെ പുറത്താണെങ്കിൽ പട്ടി പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാര് വളർത്തുന്നത് അല്ലാണ്ട് പെറ്റായിട്ട് വളർത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വല്ലാണ്ട് ബാക്കിയുള്ളവയെക്കെ എന്താ പറയുക മാർക്കറ്റ് എന്താ വിപണിയില് വിൽക്കാനുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാര് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്